കേരളത്തിൽ കൂടുതലായിട്ടും മലയാള ഭാഷയാണ് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ ഭാഷാ രീതികളാണ് ഉള്ളത് ഇപ്പോൾ ഓരോ ജില്ലയിലും തിരുവനന്തപുരത്താണെങ്കിൽ വേറൊരു ഭാഷാ ശൈലിയാണ് അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം വയനാട്ടിൽ കൊ അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ വേറെ വേറെ അവരുടേതായ ഭാഷാ ശൈലിയാണ് അവരുടെ നാടിൻറ്റേതായ ഭാഷാ ശൈലിയാണുള്ളത് അതുപോലെ തന്നെ കൂടുതലായിട്ടും മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കാറ് പിന്നെ വ് തെലു പിന്നെ പുറത്ത് നിന്ന് വന്ന് വന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ സ താമസിക്കുന്നുണ്ട് അപ്പം ഒരു ഹിന്ദി തെലുങ്ക് ഉർദു തമിഴ് എല്ലാം സംസാരിക്കുന്നവർ ഉണ്ട് എല്ലാം സംസാരിക്കുന്നുണ്ട് തമിഴ് തമിഴ് സംസാരിക്കുന്നവർ നമ്മുടെ കേരളത്തിലുണ്ട് ഹിന്ദി സംസാരിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട് ഇപ്പോൾ സ്കൂളുകളിലെല്ലാം ഒരു മലയാളവും ഇംഗ്ലീഷും ഉറുദു ഒക്ക പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ എല്ലാ ഒരുവിധം എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന ഇ നിലനിൽപ്പ് നിൽക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് മെറ്റീരിയലുണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്